ഞാൻ ഇതുവരെ ഡാൻസ് നൃത്തമത്സരത്തിൽ പങ്കെടുത്ത് പങ്കെടുത്തിട്ടില്ല ഇതുവരെ നൃത്തം ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂട എത്രയൊക്കെ ശ്രമിച്ചാലും കയ്യും കാലും അതിന് ഒത്ത വിധത്തിൽ വഴങ്ങത്തില്ല അതുകൊണ്ടുതന്നെ ഇതുവരെ ഞാൻ നൃത്തം ചെയ്യാൻ നോക്കിയിട്ടില്ല ഒരിക്കൽ ശ്രമിച്ചിട്ടുണ്ട് പണ്ട് അന്ന് വലിയ ഒരു ഇത് അതിൽ നിന്നും എനിക്ക് കിട്ടാത്തതുകൊ ണ്ടുതന്നെ ഞാൻ നിർത്തി നൃത്തത്തിന് അതിന്റേതായ ഒരു കഴിവില്ലേ കഴിവ് വേണ്ടേ അതില്ലാത്തതുകൊണ്ടാവാം പിന്നെ ഞാൻ അതിന് നോക്കിയിട്ടുമില്ല അതുകൊണ്ടുതന്നെ നൃത്തം എന്റെ ഒരു മേഖലയല്ല ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് പ്രതേകിച്ച് അനുഭവവും ഇല്ല അതുകൊണ്ടുതന്നെ എടുത്ത് പറയാനായിട്ട് അനുഭവം ഇല്ലാത്തതുകൊണ്ടുതന്നെ എന്ത് പറയാനാണ് നൃത്തം ഞാൻ കളിച്ചിട്ടും ഇല്ല അതുകൊണ്ടുതന്നെ ഒരു അനുഭവവും ഇല്ല അതിൽ നിന്ന് നൃത്തം പക്ഷെ കളിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്